എൻ്റെ പേര് അബിൻ ജോൺ വർഗീസ് എന്നാണ് എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളിക്ക് അടുത്തുള്ള തോട്ടിക്കാട് എന്നൊരു ഗ്രാമത്തിലാണ് ഞാനൊരു കർഷകനാണ് ഞാൻ കുറേയേറെ വർഷങ്ങളായി കൃഷികൾ ചെയ്ത് വരികയാണ് എൻ്റെ കയ്യിൽ വാഴയും തേക്ക് മാവ് പ്ലാവ് മഞ്ഞൾ ചോളം തുടങ്ങിയ കൃഷികളൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത് ഇപ്പം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസത്തെ ചെറിയ മഹാമാരിയിലും കൊടുങ്കാറ്റിലും എൻ്റെ വാഴ കൃഷിക്കും മറ്റ് കൃഷികൾക്കും നാശങ്ങൾ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പം എനിക്ക് അതിൽ നഷ്ടപ്പെട്ട വിളകൾക്ക് ഇൻഷുറൻസിൽ കവർ ചെയ്യുന്നതാണോ അല്ലയോ എന്നൊക്കെ എനിക്ക് അറിയാൻ താല്പര്യമുണ്ട് പിന്നെ എനിക്ക് നിങ്ങളുടെ ഒരു ഇൻഷുറൻസ് ഏജൻറുമായോ ബ്രോക്കറുമായോ എനിക്കൊരു മീറ്റിങ്ങ് ഷെഡ്യൂൾ ചെയ്യണമെന്ന് താല്പര്യമുണ്ട് അവരുമായി സംസാരിച്ച് ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയാൻ എനിക്ക് താല്പര്യമുണ്ട് പിന്നെ എനിക്ക് വാഴ കൂടാതെ ഞാൻ വാഴ കൃഷിക്ക് മാത്രമായിരുന്നു ഇൻഷുറൻസ് കവറേജ് എടുത്തിരുന്നത് വാഴ കൃഷിക്ക് പുറമേ ഉള്ള ബാക്കി കൃഷികളും എനിക്ക് നഷ്ടമുണ്ടായിട്ടുണ്ട് അപ്പം അതും ഈ ഇൻഷുറൻസിൽ കവർ ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ എനിക്ക് സംശയങ്ങളുണ്ട് എൻ്റെ ഇൻഷുറൻസ് നമ്പർ എന്ന് പറയുന്നത് ഏഴ് എട്ട് മൂന്ന് അഞ്ച് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പതിനാല് പൂജ്യം എന്ന നമ്പർ ആണ് ഇതാണ് എൻറെ എൻ്റെ കയ്യിലുള്ള ബോണ്ടിൻറെ നമ്പർ എൻ്റെ കയ്യിലുള്ള രേഖകളെന്ന് പറയാനുള്ളത് ഞാൻ ഈ ഇൻഷു എൻ്റെ ഇൻഷുറൻസിൻ്റെ ബോണ്ടിൻറെ രേഖകളാണ് ഇത് കൂടാതെ വേറെ രേഖകളൊന്നും എൻ്റെ കയ്യിലില്ല ഇതിന് ഇൻഷുറൻസ് ലഭിക്കുവാനായി എൻ്റെ കയ്യിൽ വേറെ എന്തൊക്കെ ഡോക്യൂമെൻറുകൾ വേണമെന്ന് ഉള്ള കാര്യത്തിൽ എനിക്കൊരു കൃത്യമായ വിവരമില്ല ഇതിനെ കുറിച്ചുള്ള വിവരാ വിശദാംശങ്ങൾ ഒക്കെ നിങ്ങളുടെ ഏജൻറുമായി സംസാരിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ എനിക്ക് താല്പര്യമുണ്ട് എൻ്റെ ഈ അപേക്ഷ നിങ്ങൾ നിങ്ങളുടെ ഒരു ഏജൻറുമായി കൃത്യമായി സംസാരിച്ച് മനസ്സിലാക്കാൻ എനിക്ക് താൽപര്യപ്പെടുന്നു ഇതിനായി എന്നെ ബന്ധപ്പെടാൻ ശ്രമിക്കുക